ഹലോ ഹലോ ആ അതെ എന്താണ് വേണ്ടത് ആ ഏതാണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്

ആ ഏത് നിങ്ങൾക്ക് ഏത് തടിയിൽ ഉള്ളതാണ് വേണ്ടത് ആ ഇപ്പം ഞങ്ങൾക്ക് ഓഫറുണ്ട് പെരുന്നാളിൻ്റെ വലിയ പെരുന്നാൾ അടുപ്പിച്ചിട്ടുള്ള ഓഫറുകളുണ്ട് കേട്ടോ അപ്പോൾ തേക്ക് തേക്കിൻ്റെ ഒക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഇപ്പം കോമ്പോ ഓഫറായിയിട്ട് കോമ്പോ സെറ്റുകളുണ്ട് എല്ലാം കൂടെ ഫാമിലി കട്ടിൽ പിന്നെ അലമാര ആ പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ആ എല്ലാം കൂടെ വരുന്നൊരു കോബോ ആയിട്ട് ഉണ്ട് ആ മരം ഒക്കെ നല്ലതാണ് ഏതാണ് ആ മിറർ ഒക്കെ ഉണ്ട് മറ്റ് ആ എല്ലാം വയ്ക്കാൻ പറ്റുന്ന മൂന്ന് ഡോറിൻ്റെ ഉണ്ട് രണ്ട് ഡോറിൻ്റെ ഉണ്ട് വലിയ ടൈപ്പൊക്കെ ഉണ്ട് ആ നിങ്ങൾ ആ ആ കോമ്പോ ആയിട്ട് വരുന്നത് ആണോ അതോ അല്ലാതെ ഇതായിട്ട് വരുന്നത് ആണോ കോമ്പോ ആയിട്ട് വരുന്നതാണെങ്കിൽ ഇതും എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒരു നാൽപ്പത്തി അയ്യായിരം ആ ഉണ്ട് ഉണ്ട് ആറ് അടിയുടെ ഉണ്ട് ആ കിട്ടും കിട്ടും ആ നമ്മൾ സെലക്ട് ചെയ്ത ആ ഡൈനിംഗ് ടേബിൾ ഒക്കെയോ എ എല്ലാം പുതിയ മോഡലിൽ വരുന്നത് ഉണ്ട് അതെല്ലാം പന്ത്രണ്ട് രൂപ മുതലൊക്കെ ഉണ്ട് പിന്നെ ഏഴായിരത്തിൻ്റെ ഉണ്ട് ഏഴായിരത്തിൻ്റെ ഒക്കെ വരുന്നത് നാല് നാല് കസേര എല്ലാം കൂടെ ഉണ്ട് പിന്നെ സോഫ ഉണ്ട് ആ എല്ലാം ഉണ്ട് നിങ്ങൾ ആ ആ മരം തേക്കിൽ വരുന്നുണ്ട് ആനില ഉണ്ട് പ്ലാവ് ഉണ്ട് ആ ഇത് നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഹോം ഡെലിവറി ഒക്കെ ഫ്രീ ആയിരിക്കും

ആ വലിയ സോഫകളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ എല്ലാം നല്ല കളർ ചേഞ്ചിനും എല്ലാം ഉണ്ട്

ആ നിങ്ങൾ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായ എല്ലാം എടുക്കുവാണെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് നമ്മുടേതായ രീതിയിൽ തരുന്നതായിരിക്കും ആ എന്നാണ് ഹൗസ് വാർമിംഗ്

ആ അറിയാൻ പറ്റും ആ എല്ലാം നല്ല കളറുകളും എല്ലാം ഉണ്ട് ഓക്കെ താങ്ക്യൂ ഓക്കെ